നമസ്കാരം മാം മൈക്ക ട്രാവൽ ഏജൻസി ആണ് എന്താണ് മാമിന് ഹെൽപ്പ് എന്താണ് വേണ്ടത് ഓ ആയിക്കോട്ടെ മാം അതിനാണല്ലോ നമ്മൾ മാം ഏത് തരത്തിലുള്ള മേഖലയാണ് മാം ചൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ മാമിനെന്ത് ഏത് തരത്തിലുള്ള സ്ഥലങ്ങൾ കാണാനാണ് തോന്നുന്നത് ലൈക്ക് മാമിൻ്റെ ഇൻ്ററസ്റ്റ് ഏതൊക്കെയാണെന്നൊന്ന് പറയുമോ ഓ ആ ആയിക്കോട്ടെ മാം മാമിനിപ്പോൾ ഷോപ്പിംങ്ങിൻറെ ഒരിതിലാണ് ഇൻ്ററസ്റ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് മുംബൈ ആണ് മാം മുംബൈ നല്ലൊരു സ്ഥലമാണ് മാമിന് പറ്റിയ സ്ഥലമാണെന്നാണ് എനിക്കിപ്പം മാമിനോട് ഇത്രയും നേരം സംസാരിച്ചെന്ന് വെച്ച് എനിക്ക് തോന്നുന്നത് മാം മുംബൈ പോവണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് കാണാനാണ്

ഇഷ്ടം പോലെ മാം മാം ഷോപ്പിംഗ് മാൾ മാത്രമല്ല മുംബൈ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനായിട്ടും മേടിക്കാനായിട്ടും കുറേ സ്ട്രീറ്റ് ആയാലും എല്ലായിടത്തും കുറേ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണ് മാം അവിടുത്തെ ഭക്ഷണങ്ങളായിക്കോട്ടെ എല്ലാം മാമിൻ്റെ രുചിക്കനുസരിച്ചുള്ളത് കിട്ടും അങ്ങനത്തെ ഒരു സ്ഥലമാണ് മാം എല്ലാവർക്കും വോക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണ് മാം മുംബൈ ഹലോ അതെ മാം മാം മാം എത്ര ഏകദേശം എത്ര ഒരു ദിവസത്തേക്കാണിത് അന്വേഷിക്കുന്നത് ഒരാഴ്ചയാണോ ഒരാഴ്ച അല്ലേ ആ ഓക്കെ അപ്പോൾ മാമിന് ഒരാഴ്ചയ്ക്കുള്ള അവിടെ താമസ സൗകര്യം പിന്നെ ഒരു നമ്മളൊരു ടൂർ ഗൈഡിനെ വിടും മാമിൻ്റെ കൂടെ മാമിന് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളും കാണിച്ചുതരും എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുപോവും എല്ലാം ചെയ്യും മാമിൻറെ രു ഡ്രൈവർ ആയിട്ടും ആളുണ്ടാവും പിന്നെ മാമിന് ഏത് കാർ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതും നമ്മൾ വിടും

ആ പറയൂ മാം മാം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ബാക്കിയുള്ള ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ എല്ലാം മാമിന് എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരു ഏകദേശം എമൗണ്ടേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ ഒരു മുപ്പതിനായിരം ആയിരിക്കും മാം ഏകദേശം ഒരു എമൗണ്ട് നമുക്ക് എല്ലാം കൂടി വരുമ്പോൾ ലൈക്ക് ഭക്ഷണമായാലും താമസ സൗകര്യമായാലും ഒക്കെ കൂടി വരുമ്പോൾ ഒരു മുപ്പതിനായിരം ആവും മാം അത് ഓക്കെ അല്ലേ മാമിന് ഓക്കെ ഓക്കെ മാം എന്നാൽ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വേറെ പിന്നെ അറിയിക്കാം മാം താങ്ക്സ് താങ്ക് യൂ